ഹലോ ബാങ്ക് മാനേജർ അല്ലേ

ആ ആ ഞാൻ അത് ഇന്നലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത കസ്റ്റമർ ആണ് പേര് സിന്ധു ആ സാർ എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് ഒന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് അതായത് ഞാൻ ഇപ്പോൾ അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തല്ലോ അപ്പോൾ ഞാൻ ഇപ്പം സ്റ്റാർട്ടിംഗ് അവിടെ ഒരു ടെൻ ലാക്ക് റുപ്പീസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് രണ്ട് വർഷത്തേക്ക് ഫിക്സ് ആ സ്ഥിരം നിക്ഷേപം ആയിട്ട് ഇടാൻ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് എത്ര ആണ് സാർ ഇൻ്ററസ്റ്റ് നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നത് പലിശ നിരക്ക് സ്ഥിര നിക്ഷേപത്തിന് ഇപ്പോൾ കൊടുക്കുന്ന പലിശ

സാറേ പിന്നെ ഞാൻ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നാൽപ്പത്തി ഏഴ് വയസ്സ് ആണ് ഇത് ഏഴ് ഏഴര ശതമാനം പലിശ കിട്ടും അല്ലേ പിന്നെ എനിക്ക് ഒരു സംശയം കൂടി ഉണ്ട് സാറേ എന്നാണെന്നോ ഇത് ഈ ഗവൺമെൻ്റിൻ്റെ റിസർവ് ബാങ്കിൻ്റെ അണ്ടറിൽ നമുക്ക് ഇതിന് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടോ എത്ര ലക്ഷം വരെയുള്ള തുകയ്ക്ക് ആണ് പരിരക്ഷ പറയാമോ

കൊടുത്തിട്ടുണ്ട് സാറേ അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ഈ പത്ത് ലക്ഷം ഇടുമ്പോൾ അതിന് നിങ്ങൾ ഇപ്പം ഇൻഷുറൻസ് പരിരക്ഷ തരുന്നു എന്ന് ആണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഞങ്ങൾ അതിന് ഒരു അധികമായ തുക നിങ്ങൾ ഈടാക്കുന്നത് ഉണ്ടോ കസ്റ്റം ആ അതായത് നിങ്ങളുടെ അവിടെ വരുന്ന ആൾക്കാരിൽ നിന്നും നിങ്ങളുടെ ഇടപാടുകാരിൽ നിന്നും നിങ്ങൾ അതിന് ആയിട്ടുള്ള ഒരു അധിക തുക ഈടാക്കുന്നില്ലേ അപ്പോൾ സാറ് പറയുന്നത് ഇതൊരു സൗജന്യ സേവനം ആണെന്ന് ആണോ ഉറപ്പ് ആണ് ആ

ഇല്ല അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി അറിയാൻ ഉണ്ടായിരുന്നു സാറേ ഇതിൽ രണ്ട് ഇത് രണ്ട് വർഷത്തിന് ശേഷം മാത്രമേ നമ്മൾക്ക് പിൻവലിക്കാൻ സാധിക്കൂ അല്ലേ

ആ ആ ആ ആ ആ ആ

ആ അത് ആ അപ്പോൾ സാറ് പറയുന്നത് തീർത്തും തികച്ചും സൗജന്യവും അത് പോലെ തന്നെ സുരക്ഷയും ഉള്ള ഒരു നിക്ഷേപം ആണെന്ന് ആണ് അല്ലേ ആ ആ

ആ ഓക്കെ ആ ആ ശരി സാർ വളരെ വളരെ അധികം നന്ദി സാറ് ഇത്രയും നല്ല ഒരു സേവനം തന്നതിന് വളരെ അധികം നന്ദി ഓക്കെ

ആ ഓക്കെ സാർ നന്ദി ഓക്കെ